എന്ത് വരക്കണം എന്ന് ഞാൻ തീരുമാനിക്കാറുള്ളത് ഞാൻ ദിവസേന കാണുന്ന കാഴ്ചകൾ അനുസരിച്ചാണ് ഇപ്പോൾ ഒരു പൂവോ അല്ലെങ്കിൽ ഒരു മൃഗമോ അല്ലെങ്കിൽ ഒരു ആളോ അല്ലെങ്കിൽ ഞാൻ കാണുന്ന കാഴ്ചകളോ ആണ് അത് പേപ്പറിലേക്ക് പകർത്തി എടുക്കാൻ തോന്നുമ്പോഴാണ് നമുക്കിത് പകർത്തി എടുക്കണം എന്ന് തോന്നും അപ്പോഴാണ് നമ്മൾ എന്ത് വരയ്ക്കണം എന്ന് നമ്മൾ അവിടെ തീരുമാനിക്കുന്നത് എനിക്ക് കൂടുതൽ വരയ്ക്കാൻ താൽപ്പര്യം മരങ്ങളും അതേപോലെ കാണുന്ന കാഴ്ചകളും അതേപോലെ പേപ്പറിലേക്ക് പകർത്തി എടുക്കാനാണ് എനിക്ക് താൽപര്യം അതേപോലെതന്നെ പോർട്രേറ്റ് വരയ്ക്കാനും എനിക്ക് ഒരുപാട് താൽപര്യമാണ്